അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നമ്മെ കൈ പിടിച്ച് ഉയർത്തുന്നതിൽ പത്രങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് വായന മനസ്സ് സംസാര ശൈലികൾ ഇവയെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ പത്രങ്ങളുടെ അല്ലെങ്കിൽ പത്രവാർത്തകളുടെ പത്രങ്ങളിലെ അക്ഷരങ്ങളിലൂടെ നമുക്ക് നമുക്ക് നമ്മുടെ ചിന്തകളെ ഉണർത്താനും ഉയർത്താനും സാധിക്കുന്നുണ്ട് പ്രാദേശിക പത്രങ്ങൾ പത്രങ്ങളുടെ ആ വായനയിലൂടെ അക്ഷരങ്ങളിലൂടെ കുട്ടികളെ അക്ഷരങ്ങളുടെ വലിയ ലോകത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് വലിയ വലിയ ഹെഡിങ്ങുകളിലൂടെ വരുന്ന വായന വാർത്തകൾ അക്ഷരങ്ങൾ അവരുടെ മനസ്സിൽ പതിയുകയും അവരെ അതിലൂടെ അക്ഷര ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്താനും സാധിക്കുന്നവയാണ് പത്രങ്ങൾ ഒരു ദിവസം ഉണരുന്നതു തന്നെ പത്രത്തിൻ്റെ ആ പത്രത്തിലെ വാർത്തകളിലൂടെ അക്ഷരങ്ങളിലൂടെ കണ്ണ് ഓടിച്ചു കൊണ്ടു തന്നെയായിരിക്കും ഒരു ദിവസത്തെ ഉണർവു തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ഉണർന്ന് എഴുന്നേറ്റു വരുമ്പം തന്നെ പത്രമെടുത്ത് രാവിലത്തെ ഹെഡിങ്ങുകളൊക്കെ നോക്കി ആ വാർത്തകളൊക്കെ കാണുമ്പോൾ തന്നെ ആ അക്ഷരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിലായിരിക്കും പത്രങ്ങൾ ആ പത്രത്തിലൂടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖലയിലും പത്രങ്ങൾക്ക് ധാരാളം പങ്കുണ്ട് പത്രങ്ങളിൽ ബുധനാഴ്ചകളിൽ കരിയർ ഗൈഡൻസ് എന്നും പറഞ്ഞ് ഒരു മേഖലയുണ്ട് അവിടേക്ക് ചെന്നാൽ നമുക്ക് നമ്മുടെ കരിയറിലേക്ക് ഉയർത്തപ്പെടേണ്ട പല ജോലി സാധ്യതകൾ അതിനകത്തുണ്ടാകും അതു പോലെ തന്നെ പരീക്ഷകൾ കൃത്യ സമയത്ത് ഏതു ദിവസം ഏതു സമയത്ത് എന്നിങ്ങനെയുള്ള ധാരാളം വാർത്തകൾ നമുക്ക് പത്രത്തിലൂടെ അറിയാൻ സാധിക്കും ജോലി സംബന്ധമായ കാര്യങ്ങൾ ധാരാളം വരു ധാരാളം വരുന്ന ഒരു മാധ്യമമാണ് പത്രങ്ങൾ പത്രങ്ങളിലൂടെയുള്ള വായന വളരെയധികം ചിന്തയെ ഉണർത്തുവാനും നമുക്ക് അതിലൂടെ കാര്യങ്ങൾ ഗ്രഹിച്ച് കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ടു പോകുവാനും സാധിക്കുന്നവയാണ് പത്രങ്ങൾ വീട്ടിലെ കുട്ടികൾക്ക് അക്ഷരം അക്ഷരം പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ആ അക്ഷരങ്ങൾ കൂട്ടി ചേർത്ത് വായിക്കുവാനും ആ അക്ഷരങ്ങളെ ഒന്നുകൂടി മനസ്സിരുത്തുവാനും പത്രങ്ങൾ സഹായിക്കുന്നുണ്ട് അത് അവരുടെ പാഠ പുസ്തകത്തിലേക്കാൾ പത്രങ്ങളിലെ ആ വാർത്തകൾ കൈ ചൂണ്ടി വായിക്കുമ്പോൾ ആ അക്ഷരങ്ങളിലൂടെ മനസ്സിലെത്തുകയും അതിലൂടെ അവർ വാക്കുകളെ കൂട്ടി യോജിപ്പിച്ച് വാക്യങ്ങളാക്കാൻ അവർക്കു സാധിക്കുന്നു അക്ഷരങ്ങൾ പെട്ടെന്നു തന്നെ ഗൃഹസ്ഥമാക്കാനും വായനാ ശീലത്തിലേക്കു നയിക്കുവാനും പത്രങ്ങൾ സാധിക്കുക പത്രങ്ങൾക്കു സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പത്താം ക്ലാസുകളിലേക്ക് ഓരോ പാഠങ്ങളും പരീക്ഷാ സമയമാകുമ്പോഴും ഓരോ പാഠങ്ങളും വളരെയധികം വിശകലനം ചെയ്ത് പത്രങ്ങളിൽ കൊടുക്കാറുണ്ട് പരീക്ഷയാകുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സും കീറി മുറിച്ച് നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ അതിൻ്റെ ക്വസ്റ്റൻസ് ഏതു മോഡലിൽ വരും ആൻസേർസ് എങ്ങനെ എഴുതണം ഇതെല്ലാം തന്നെ പത്രങ്ങളിൽ വരാറുണ്ട് കുട്ടികൾ അതു വായിക്കാറുമുണ്ട് അവർ നല്ല രീതിയിൽ ആ പത്രങ്ങളെ വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് വീട്ടിൽ വരുത്തുന്ന പത്രങ്ങൾ കൃത്യമായ രീതിയിൽ അവർ അതിനെ നോക്കി കണ്ടു വായിക്കുകയും അതിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്